ഈ സമയത്ത് ഇപ്പം വിദ്യാർത്ഥികൾ കൂടുതലായിട്ടും പോകുന്നത് എന്ന് പറഞ്ഞാൽ കാനഡ യു കെ അങ്ങനെയുള്ള മറ്റു രാജ്യങ്ങളിലേക്കാണ് ഇപ്പം കൂടുതലായിട്ടും മെയിനായിട്ടും അവർ പോകുന്ന മേഖലകളെന്നു പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡാണ് നഴ്സിംഗിനാണ് ഇപ്പം ബോയ്സ് ആകട്ടെ ഗേൾസ് ആകട്ടെ കൂടുതൽ ആൾക്കാരും പോകാൻ ആഗ്രഹിക്കുന്നത് അവർ പോകുന്നത് നഴ്സിംഗ് മേഖലയിലേക്കാണ് കാരണം ഈ സമയത്ത് ഇപ്പം ഇനി വരുന്ന സമയമാണെങ്കിലും ഇപ്പോഴാണെങ്കിലും കൂടുതലായിട്ട് ജോബ് ഓഫർ ഉള്ള ഒരു മേഖലയാണ് ഈ നഴ്സിംഗ് എന്നു പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡ് എന്നു പറഞ്ഞാൽ നഴ്സിംഗ് എന്നാലും മെഡിക്കൽ മെഡിക്കൽ ഏതു തരം മെഡിക്കൽ ഫീൽഡുകളിലേക്ക് വളരെ യൂസ്ഫുൾ ആണ് ഇപ്പം കൂടുതൽ ആയിട്ടും അങ്ങനെയാണ് പോകുന്നത്